പറയൂ ഏച്ചീ ആ ഇപ്പോൾ നമുക്കിവിടങ്ങനെ എപ്പോളാണ് പോവാനുദ്ദേശിക്കുന്നത് രാവിലെയാണോ

ഉച്ചയാവുമ്പോഴേക്ക് എത്തിയാൽ മതിയോ അപ്പോൾ ആ നമുക്ക് മാക്സിമം ഇവിടുന്നൊരു ഒന്നരമണിക്കൂറ് ധാരാളമാണ് ആ ഒന്നരമണിക്കൂറ് ധാരാളമാണ് നമുക്കിവിടുന്ന് അവിടെ എത്താന് കൂടുതലായിട്ടുള്ള ഇവിടുന്നു അത്ര ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല കുഴപ്പമില്ലാത്ത റോഡും ആണ് മാക്സിമം എൻപതോ എഴ്പ എഴുപത് എൺപത് കിലോമീറ്ററ് അത്രയേ വരുവൊള്ളു

നമക്ക് രണ്ട് റൂട്ട് ഉണ്ട് തിരുവല്ലാമല പയ്യന്നൂര് അങ്ങനെ പോകാം അല്ലെങ്കിൽ പിന്നെ പട്ടാമ്പി അങ്ങനെയും പോകാം പട്ടാമ്പി ആ വഴിക്ക് പട്ടാമ്പി ഗുരുവായൂര് വഴിക്കും പോകാം ആ വലിയ വ്യത്യാസം വരില്ല പട്ടാമ്പി റൂട്ടാവുമ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററ് കൂടും കുറച്ചുംകൂടെ റോഡ് വീതിയുള്ളതാണ് അപ്പോൾ അത്ര മറ്റേത് കുറച്ച് വീതി കുറവുള്ള റോഡാണ് ഗുരുവായൂര് അങ്ങനെ പോകാം കൊഴ ഇല്ല രണ്ടും ഏകദേശം തന്നെ ആ ഓ അതൊക്കെ കേ അതൊന്നും കുഴപ്പമില്ല അതായത് ഇപ്പം നമ്മൾ പോകുന്ന സമയം പോലിരിക്കും ഉച്ചയൊക്കെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മണിക്കോ ഒന്നരയ്ക്കോ നട അടയ്ക്കും പിന്നെ നമ്മളാ നേരത്ത് അവിടെ എത്തിയിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് നേരത്തെയെത്താം ഒരു പതിനൊന്ന് വൈകുന്നേരത്തോ ആ അപ്പോൾ അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റെ നമ്

ആ ആ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു നാല് നാലരയാവുമ്പോക്ക് അവിടുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോർത്ത് വേറെ രണ്ട് മൂന്ന് റീസന്റ് നമ്പർ എൻ്റെ കയ്യില്ണ്ട് പാർത്ഥാദി ക്ഷേത്രമുണ്ട് അവിടെ ഓ തുറക്കുമല്ലൊ ഒര് നാല് മണിക്ക് തുറക്കും ആ മമ്മിയൂര് പോവാം അതവിടെ തന്നെയാണ് അവിടുന്നാകെ അര കിലോമീറ്ററല്ലെ ഉള്ളു പിന്നെ അവിടെ പാർത്തസാരഥി ക്ഷേത്രമുണ്ട് പിന്നെ അപ്പുറത്തൊരു ദേവീ ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ പോകണമെങ്കിൽ പോകാം അതൊന്നും കുഴപ്പമില്ല ആ അതിപ്പോൾ എന്തായാലും നാലര കഴിഞ്ഞ് നാലരക്ക് അമ്പലത്ത്ക്ക് ഗുരുവായൂരിൽ ഒരു നാലര നാലേമുക്കാലാകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് പിന്നെ അഞ്ചരക്ക് അവിടെ നട തുറന്ന് നിങ്ങൾ തൊഴുത് വരുമ്പോഴേക്കും അഞ്ചരയാവും പിന്നെ മറ്റെ മമ്മേരി തൊഴുത് വരുമ്പോൾ അഞ്ചരയാവും അവിടന്ന് നേരെ പാർത്ത സാരഥി പോയി അവിടെ തൊഴുത് വെരുമ്പോഴേക്കും ആറര ആ നമുക്ക് അതായത് അടുത്തടുത്ത് ആണേലും പക്ഷേ നമുക്ക് അവിടുന്ന് നിങ്ങള് എങ്ങനെയാണ് പോകുന്നേ ഗുരുവായൂര് പോയിട്ട് ബാക്കിയെല്ലായിടത്തും നിങ്ങൾ നടന്ന് പോവാനാ ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല വെയിറ്റിങ് അത്രെന്നും വരില്ല പ്രശ്നമൊന്നുമില്ല ആ വെയിറ്റിങ് നോക്കണ്ട ഞാനും കുളിച്ച് തൊഴുത് അമ്പലത്തിൽ പോവാലോ എനിക്കും പ്രശ്നം ഇല്ലല്ലൊ ഞാൻ അവിടെ വെറുതെ ഇരിക്കണ നേരം കൊണ്ട് അമ്പലത്തിൽ പോയീന്നായല്ലോ എന്തായാലും ആ അതൊക്കെ നമുക്ക് നോക്കാം കിലോമീറ്ററിന് പതിമൂ പതിനഞ്ചാണ് ഇപ്പോൾ മിനിമം ചാർജ് വരുന്നത് പക്ഷേ ലോങ് ട്രിപ്പായത് കൊണ്ട് നോക്കാം പ്രശ്നം വരില്ല അപ്പോണ്ടവുപ്പോര് ഇരുപത്തെട്ട് ഇട്ടിട്ട് നമക്കൊരു ഇരുപത്തഞ്ചിന് ഇടാ ഒരു നൂറ്ററ്വത് നൂറ്റെഴ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാ ഇരുപത്തഞ്ച് ഇടാ ഇരുപത്തഞ്ച് ഇര്ന്നൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു മുവ്വായിരൊർപ്യാ വരും മാക്സിമം

ആ അത് പറഞ്ഞല്ലോ കുഴപ്പമില്ല ചേച്ചി പറഞ്ഞാൽ മതി ചേച്ചി എപ്പൊഴാണ് വിളിക്കണമന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം പോലെ രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞാൽ ഞമ്മളതിനൻസരിച്ച് പ്ലാൻ ചെയ്യാം അത്രയേ ഉള്ളു അല്ലാണ്ട് വലിയ പ്ലാനിങ്ങൊന്നുമില്ല ആ മ് നമ്പറ് ആ ഞാൻ വേറെ നമ്പറ് തരാം അതില് വിളിച്ചാൽ മതി അതാകുമ്പോൾ ആ അതാണെൻ്റെ ഈ നമ്പറ് ചേച്ചീടെ നമ്പറാണ് മറ്റെ നമ്പറില് വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരോ ആ ബബീഷ് ശരി ശരി